ഇങ്ങനെ ഒത്തുകൂടുന്ന കൂട്ടായ്മകൾ എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടു ഇവിടെ കുടുംബസ്ത്രീകൾ പോലെയുള്ള ജനസ്ത്രീ പോലെയുള്ള സംഘങ്ങൾ ആണ് മെയിൻ ആയിട്ടുള്ളത് അതിൽ വിരുന്ന് ഒത്തു ചേരൽ ഒന്നുമല്ല അങ്ങനെ ഒന്നുമല്ല ഒരു കൂട്ടായ്മ മാത്രം പിന്നെ വിരുന്ന് എന്നൊക്കെ പറയുമ്പം റെസിഡൻസ് അസോസിയേഷനുകലകൾ വേണം അത് ആഴ്ചകളിൽ ഇല്ല മാസത്തിൽ മാസത്തിലൊക്കെ ഇങ്ങനെ കൂടി പരിപാടികളൊക്കെ അവതരിപ്പിച്ച് ഒരു ചായയോ അതൊക്കെ നോമ്പിനും നോമ്പ് തുറക്കലും ഓണം വിഷു അങ്ങനത്തേതിനൊക്കെ ഒരു ഒത്തു ചേരൽ അങ്ങനത്തെ പരിപാടികളൊക്കെയേ ഉളളൂ